ഹലോ ചേട്ടാ സ്വിഗ്ഗി അല്ലേ എനിക്കൊരു ഓര്ഡര് വേണമായിരുന്നു എന്റെ പേര് കൃഷ്ണന് എന്റെ വീട് കുഴമന്നത്താണ് കുഴമന്നം സി എ ഹൈ സ്സ്കൂളിന്റെ അടുത്താണ് ആ പക്ഷേ ഞങ്ങൾക്ക് ഒരു നാല് ചിക്കന് ബിരിയാണിയും ഒരു രണ്ട് ഊണ് ആണ് വേണ്ടത് ഞങ്ങൾ വിളിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങള്ക്ക് അത് എന്താണ് ഹോട്ടല് സംഗമം അതായത് കുഴമന്നത്തെ ഹോട്ടല് സംഗമം അവിടെനിന്നാണ് ഈ ഫുഡ് ഫുഡ് വേണ്ടത് അതെ ആ നിങ്ങൾക്ക് ഓഫീസ് പാലക്കാട് ആണെന്ന് അറിയാം പക്ഷേ ഞങ്ങള് എപ്പോഴും അവിടുന്നാണ് ഫുഡ് കഴിക്കാറേ വീട്ടിലേക്ക് ആണെങ്കിലും എപ്പോഴും വാങ്ങിക്കുന്നതും അവിടെ നിന്നാണ് ആ നിങ്ങൾ ക്ക ട്രാവലിംഗ് കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് അറിയാം എക്സ്പെന്സ് ഉണ്ടെന്ന് അറിയാം ആ അതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചതേ

ആ നിങ്ങളുടെ ട്രാവലിംഗിനുള്ള എക്സ്പെന്സ് ഞങ്ങൾ ഞങ്ങൾ തരാം അതെ പേര് ഹോട്ടല് സംഗമം ഹൈ വേയുടെ സൈഡിലുള്ളതാണ്

അതിൽ നാല് ചിക്കന് ബിരിയാണി എന്റെ സ്പെഷ്യല് ചിക്കന് ബിരിയാണി ഉണ്ട് തലശ്ശേരി അതെ ഇനി തലശ്ശേരി ചിക്കന് ബിരിയാണി ഒരു നാല്ലെണ്ണവും രണ്ട് സാദാ ഊണ്

ഞങ്ങള്ക്ക് ഒരു രണ്ട് മണിക്കൂറിന് ഉള്ളിൽ കിട്ടിയാൽ മതി കാരണം ഇപ്പം ഞങ്ങൾ ഇപ്പം കുഴമന്നത്താണ് ഇവിടുന്നിപ്പോൾ ഞങ്ങള്ക്ക് ഒരു മൂന്ന് മണിയ്ക്ക് പുറത്തോട്ട് പോകണം അപ്പം അതിനു മുമ്പ് കിട്ടണേ സമയം ഉണ്ടല്ലോ ഇപ്പം പതിനൊന്ന് മണി അല്ലേ ആയിട്ടുള്ളൂ ഒരു പന്ത്രണ്ടര ഒരു മണി ആ ടൈമിനുള്ളിൽ എത്തിച്ചാൽ മതി ഹോട്ടല് സംഗമം മറക്കരുത് കാരണം ഞങ്ങൾ എപ്പോഴും അവിടന്നുതന്നെയാണ് കഴിക്കാറ് അവിടുത്തെ ഫുഡ് ആണ് കൂടുതലും കഴിക്കാറ് അതെ അതെ നിങ്ങൾ വരുമ്പോൾ ഇവിടെ എത്തുമ്പോൾ ഒന്നു വിളിച്ചാൽ മതി സ്കുളിന്റെ അടുത്ത് എത്തുമ്പം ഒന്ന് വിളിച്ചാൽ മതി